നൃത്തം ഞാനൊരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതുപോലെ നൃത്തം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നൃത്തം കാണാനായിട്ട് ഞാനൊരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കാരണം നമ്മൾ ഏറ്റവും നമ്മുടെ വിഷമ സന്ധ്യകളിലൂടെ കടന്നു പോകുമ്പം നമ്മൾ എല്ലാം മറന്ന് സന്തോഷിക്കാനായിട്ട് എല്ലാം മറന്നു ചുവടുകൾ വെയ്ക്കുമ്പോൾ നമുക്ക് സാധിക്കും സാധിക്കും കാരണം ഏറ്റവും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ നമ്മൾ നന്നായിട്ടുണ്ട് നൃത്തം ചെയ്യുമ്പം നമ്മൾ നമ്മളെ തന്നെ മറക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ മറക്കാനായിട്ടും അതിലൂടെ സന്തോഷം കണ്ടെത്താനായിട്ടും പിന്നെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം നമുക്കൊരു ഒരു ഒരു ഒരു പാർട്ടിക്കു പോയി അല്ലെങ്കിലൊരു ഒരു ഒരു ഒരു സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായെങ്കിൽ രണ്ടു പേർ കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിലൊരു കോളേജ് കാലഘട്ടത്തിലാണ് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം കാര്യം നമ്മുടെ കോളേജ് ലൈഫിലുണ്ടായെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെയായിട്ടു നിൽക്കുമ്പോളാദ്യം ചെയ്യുന്നത് രണ്ടു കൈയ്യും കൊട്ടി രണ്ടു കാലും എടുത്തു ചാടി നമ്മുടെ ആനന്ദം നമ്മുടെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കും അപ്പം അതും അതും ഒരു നൃത്തത്തിൻ്റെയൊരു ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരു ഭാഗമാണ് എന്നു ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ആനന്ദം നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടങ്ങൾ മറക്കാൻ ഇതെല്ലാം നമുക്ക് നൃത്തം നമ്മളെ സഹായിക്കുന്നുണ്ട് നൃത്തം ഓരോ മനുഷ്യൻ്റെ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട് നൃത്തം ഇലകൾ കാറ്റിനനുസരിച്ച് ചാഞ്ചാടുന്നതും പക്ഷികൾക്ക് പക്ഷികളുടെ നടത്തവും പക്ഷികളുടെ ചിറക് വിരിക്കലും മൃഗങ്ങളുടെ നടത്തവും എല്ലാമൊരു ഒരു സംഗീതാത്മ കഥയുണ്ട് അതിനകത്തൊരു നൃത്തത്തിൻ്റെ ശൈലിയുണ്ട് എല്ലാം നമുക്ക് ചുറ്റും അറിയാം പ്രകൃതി സന്തോഷിക്കുന്ന അവസരങ്ങൾ നല്ല നമ്മൾ എൻജോയ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ എല്ലായിടവും ചലിച്ചു കൊണ്ടിരിക്കുകയാണ് നിശ്ചലമായിട്ടിരിക്കുന്നൊരു കാര്യം നമ്മളിഷ്ടപ്പെടുന്നില്ല കാറ്റിനൊപ്പം ചലിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉള്ള ചലനങ്ങൾ നമ്മളൊരുപാടാസ്വദിക്കുന്നുണ്ട് ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് നിശ്ചലമായിട്ടുള്ള അവസ്ഥകൾ ശരിക്കും പറഞ്ഞാൽ നിശ്ചലം എന്നു പറയുന്നത് മരണമാണ് അവിടെ ജീവനില്ലാത്ത അവസ്ഥയാണ് ജീവനുള്ള അവസ്ഥയിൽ ആ വ്യക്തികളാണെങ്കിലും പ്രകൃതിയാണെങ്കിലും ചലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചലനം എന്നു പറയുന്നത് മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള നീഡാണ് ബേസിക്കായിട്ടുള്ള അവകാശമാണ് അവൻ അവൻ്റെ അവൻ്റെ എല്ലാം വികാരങ്ങളെയും വിചാരങ്ങളെയും അതിജീവിക്കാനായിട്ടും ആ അതിനൊക്കെയുള്ളൊരു അവസരമാണ് ഈ നൃത്തം എന്നു പറയുന്നത് നൃത്തം എൻ്റെ ജീവിതത്തിലൊരുപാട് പോസിറ്റീവ് എനർജിയെനിക്ക് തരുന്നുണ്ട് കാരണം ഞാൻ നൃത്തം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവർ അവരിൽ നിന്നു കിട്ടുന്നൊരു സന്തോഷം ഒരു വെൽ ഒരു പ്രത്യേകത ഒരു വൈബാണ് അവരെ പഠിപ്പിക്കുമ്പം അവരുടെ മുഖത്തു വിരിയുന്ന സന്തോഷം പിന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇതെല്ലാം ഒരു പ്രത്യേക തരം വൈബാണ് നമുക്ക് സൃഷ്ടിക്കുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിൽ നൃത്തം പഠിപ്പിക്കുന്നതിലൂടെയും നൃത്തം ചെയ്യുന്നതിലൂടെയും നമ്മുടെ സന്തോഷങ്ങളിൽ പ്രകടിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങളും മറക്കുവാനായിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നൃത്തം എന്നു ഞാൻ വിശ്വസിക്കുന്നു നല്ല രീതിയിൽ നൃത്തം ചെയ്യാനും നല്ല പാട്ടിനൊപ്പം ചുവടുകൾ വെയ്ക്കുവാനായിട്ടും ഒരുപാട് ആഗ്രഹമുണ്ട് അതു പോലെ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല കൂടുതലും നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം നമ്മുടെ സൗഹൃദ സൗഹൃദ വലയത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ കൂടുതലും മതി മറന്ന് സ്വയം മറന്നു സന്തോഷിക്കുവാനും നൃത്തം ചവിട്ടുവാനായിട്ടും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ